കൃഷി ചെയ്തത് കൊണ്ട് നമുക്ക ഒരു മെച്ചം കിട്ടുന്നില്ല പിന്നെ ഇടയ്കൊക്കെ സർക്കാരിൻ്റെ ഒരു ശകലം ആനുകൂല്യവുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒത്തിരി ദുരിതത്തിലാണ് മനുഷ്യർ ഇപ്പം ജീവിക്കുന്നത് ഈ കൃഷിയെ കൊണ്ട് മാത്രം മുന്നോട്ടു പോകാൻ പറ്റുകേലാത്ത ഒരു അവസ്ഥയായി പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം എല്ലാവരേയും ഇങ്ങനെ തുറന്ന് വിട്ടേക്കുന്നത് കൊണ്ട് മൻഷ്യൻ്റെ ജീവനും ഭീഷണിയാണ് ഒത്തിരി മനുഷ്യരെ ഇപ്പം കൊല്ലുന്നു കഷ്ടപ്പെട്ടു കൃഷി ചെയ്തു എല്ലാ വിളവെടുക്കാർ ആകുമ്പോഴത്തേക്കും ആന ഒക്കെ വന്നത് മുഴുവനും ചവിട്ടി മെതിച്ചു ഒക്കെ തീർത്തു കളയുകയാണ് അതുപോലെ കൃഷി ചെയ്തു വച്ചു പുറത്തോട്ട് കടകളിലോ സ്കൂളിലോ ഒക്കെ പോകുന്നത് പിള്ളാരും വലിയവരുമെല്ലാം ആന എല്ലാം കുത്തിക്കൊല്ലുക്കയും ചെയ്യും ആർക്കാരും ഇങ്ങനെ കൊടുത്തേക്കാം ഇത്ര ലക്ഷം കൊടുത്തേക്കുക എന്നൊക്കെ പറയും കിട്ടുന്നത് എല്ലാം ഇതാ പിന്നെ പ്രകൃതി ദുരന്താമായിട്ടും അങ്ങനെ ഇതാണ് ഒരു തരത്തിലും മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് പട്ടിണി കൊണ്ട് മനുഷ്യർ ജീവനെടുക്കുന്നത് ഒരു വശം ആത്മഹത്യ ചെയ്യുന്നവരും ഒക്കെ ആണ് കടം കടം മേടിച്ചും ലോണെടുത്തൊക്കെ ആയിരിക്കും ഈ സംഭവം കൃഷി ചെയ്യുന്നതൊക്കെ പിന്നെ അത് വിളവെടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും പിന്നെ ലോൺ തിരിച്ചടക്കാതെ വരുമ്പം വേറെ മാർഗ്ഗമില്ലാത്ത കൊണ്ട് ആ മനുഷ്യർ ഇങ്ങനെ ജീവൻ പോലും കളയാനുള്ള ഇത് അവസ്ഥയിലോട്ട് വരുന്നത് സാധനങ്ങൾക്ക് എല്ലാം ഭയങ്കര വിലക്കയറ്റവും സർക്കാർ കുറച്ചും കൂടിയൊക്കെ വൻ ഈ കൃഷിക്കാരെ സഹായിക്കണം അത് കൃഷിക്കാർക്ക് പിന്നെ തന്നെ നല്ലപോലെ കൃഷി ചെയ്യാനുള്ള പൈസ കൊടുക്കുകയും അതിൻ്റെ വിത്തും സാധനങ്ങളും ഒക്കെ കൊടുത്താലേ ഉള്ളു മാധ്യമങ്ങൾ ഈ പറയുന്ന അത്രയും ഒന്ന് എഴുത്തൊക്കെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദുരന്തം ഉണ്ടാക്കുമ്പം ഒന്ന് എഴുതും അത് കഴിയുമ്പോൾ അത് എല്ലാം മറന്ന് അങ്ങ് പോകും പിന്നെ അതേപ്പറ്റി ഒരു ഒന്നുമില്ല ഇതിൻ്റെ പൈസയൊക്കെ തരാം തരാമെന്ന് പറയുന്നതൊന്നും കിട്ടുന്നൊന്നുമില്ല ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതിന് വേണ്ട ഒരൂ നല്ല ഒരു സംവിധാനം സർക്കാർ സ്വീകരിക്കണം ഒത്തിരി ജനങ്ങൾ ഇപ്പം ഈ ജീവിക്കാൻ പറ്റുകയില്ലതെ ഇവിടെ നിന്ന് ഇറങ്ങി പോവുക എല്ലാ സാധനവും ഇങ്ങനെ കരിഞ്ഞും അല്ലെങ്കിൽ മഴക്കാലമായാൽ കാറ്റും അങ്ങനെ വല്ലതും ഒക്കെ വന്നു വെള്ളപ്പൊക്കമെല്ലാമായിട്ട് അത് ഒരുവശം അങ്ങനെ പോകുന്നു ഒരു തരത്തിൽ ഇപ്പം മനുഷ്യൻ്റെ മുന്നോട്ടു പോകാൻ പറ്റുകയില്ല ഇത് ഈ പോകുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യം കൊടുക്കണം